ഇപ്പോൾ എനിക്ക് പോവണ്ടത് സ്ഥലമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് കുറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്കിപ്പം ആഗ്രഹവില്ലാത്ത മനുഷ്യന്മാര് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും പോവാൻ ആഗ്രഹം ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ എനിക്ക് ഇപ്പം ദുബായിലൊക്കെ പോകണമെന്ന് ഭയങ്കരാഗ്രഹാണ് ദുബായിലൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് ഈ ദുബായ് ദുബായ് ദുബായ്ന്നൊക്കെ അപ്പോൾ അവിടേക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയില് എനിക്ക് കാണണം അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് ഭയങ്കരാഗ്രഹാണ് ഇപ്പോൾ ദുബായിലെ ബുർജ് ഖലീഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണണന്ന് ഭയങ്കര ആഗ്രഹാണ് കാരണന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കെട്ടിടമാണ് ബുർജ് ഖലീഫാന്നുള്ളത് അപ്പോൾ നമ്മളത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുകാന്നല്ലാണ്ട് ഞാൻ ഇത് വരെ അത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ദുബായിലൊക്കെ പോകണമെന്ന് പിന്നെ നമ്മളെ അമേരിക്ക അമേരിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല സാമ്പത്തിക വികസിത രാജ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കരാഗ്ര ആഗ്രഹാണ് എനിക്ക് അത് കാണണന്നെക്കെ അപ്പോൾ എനിക്ക് കുറെ രാജ്യങ്ങളെക്കെ എനിക്ക് ഭയങ്കരായിട്ട് കാണന്നെണ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് ഇപ്പോൾ അർജൻറ്റീനയൊക്കെ കാണണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടാകും കാരണമെന്ന് വെച്ചഴിഞ്ഞാല് നമ്മള് ഓരോ അർജൻറ്റീന ഫാൻസും കാര്യങ്ങളൊക്കെ നമ്മളർജൻറ്റീനയൊക്കെ കാണുമ്പോൾ ബ്രസീൽ ഫാൻസ് ബ്രസീല് കാണണമെന്ന് ആഗ്രഹമുണ്ടാകും അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോരുത്തർക്ക് ഓരോ രാജ്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹം എനിക്കങ്ങനെ പല രാജ്യങ്ങളും കാണണമെന്ന് ആഗ്രഹമുണ്ട്